ആ പിന്നെ ഇത് മലപ്പുറം ഭാഗത്ത് ഉള്ള പിന്നെ സ്ഥലം ബ്രോക്കർ അല്ലേ ഈ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്ഥലത്തിനൊക്കെ എന്താണ് റേറ്റ്

അടുത്തുണ്ടോ അങ്ങനെ അടുത്തള്ളത് ഉണ്ടോ അങ്ങനത്തെ സ്ഥലങ്ങൾ കിട്ടുമോ ആ പിന്നെ അവിടുത്തെ പിന്നെ വെള്ളം ഒക്കെ അവൈലബിൾ ആണോ അവിടെ അവിടെ അടുത്തുള്ള വീടുകളിൽ ഒക്കെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ അവിടെ കലക്ക വെള്ളം വരികയില്ലല്ലോ വെള്ളത്തിന് കലക്കല്ലൊന്നും ഇല്ലല്ലോ നല്ല വെള്ളം തന്നെ അല്ലേ എല്ലായിടത്തും ആ ആ പിന്നെ ആ അടുത്ത വീടുകളിലൊക്കെ എങ്ങനെയാണ് സാധാ കിണറാണോ അതോ കുഴൽക്കിണറാണോ പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ എയർ പൊല്യൂഷൻ അടുത്ത് ഇൻഡസ്ട്രി അങ്ങനെ ഒന്നും ഇല്ലല്ലോ അല്ല നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ ബുദ്ധിമുട്ടാണ് അതുപോലത്തെ ഉള്ള വിഷ വിഷവാതകം അന്വേഷിക്കുന്നത് ഈ സ്ഥലമൊക്കെ ഏകദേശം റോഡ് സൈഡിലാണോ അതോ എങ്ങനെയാണ് അപ്പോൾ ഇത്ഏകദേശം മെയിൻ റോഡിന് അടുത്താണോ കുറച്ച് ഉള്ളിലേക്കാണോ എങ്ങനെയാണ് ഓക്കെ അപ്പം പിന്നെ എല്ലാം കൊണ്ട് വാങ്ങാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണല്ലേ ആ അപ്പം പിന്നെ വെള്ളത്തിനും വെള്ളം നിങ്ങൾ പറഞ്ഞത് പോലെ വെള്ളത്തിനും കുഴപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ അപ്പം എന്നാൽ ഓക്കെ ഇത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ എന്നാൽ ഓക്കെ ശരി എന്നാൽ